ദൈർഘ്യമേറിയ ഹൈക്കിനു പോകുമ്പോൾ എന്തു പ്രശ്നമാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ ആ ഏതു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ നാടിന് അനുയോജ്യമായ ഭക്ഷണമാണ് നമ്മൾ കയ്യിൽ കരുതാറുള്ളത് നമ്മുടെ ഇപ്പം നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അതും ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് നമ്മൾ പോവുന്നെങ്കിൽ ഇവിടുത്തെ ഇവിടെയുള്ള നോർമൽ ഫുഡായിരിക്കും നമ്മള് കയ്യില് കരുതാറുള്ളൂ മറ്റു തണുപ്പു കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവടുത്തെ രീതിയനുസരിച്ച് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഊര്ജ്ജം നിലനിര്ത്താനായിട്ടിപ്പോൾ നമ്മൾ യാത്രയിൽ പൊടി മറ്റു കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ട്രക്കിങ്ങിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കും മറ്റേ ഗ്ലൂക്കോസ് അത് പൊടി അതു കരുതും അതൊക്കെ നമുക്ക് ഊർജ്ജം ധാരളം ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ ധാരാളം ഊർജ്ജം നമുക്ക് നിലനിർത്തും അപ്പോൾ ഏതു സ്ഥലത്തേക്കാണ് നമ്മളുടെ ട്രക്കിങ്ങിനു പോകുന്നത് അപ്പോൾ അതിന് ആ നാടുമായിട്ട് ആദ്യമേ അവിടുത്തെ രീതികളെല്ലാം നമ്മൾ പഠിക്കും അതിനുശേഷം ഭക്ഷണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഏതു രീതിയിലുള്ള കാര്യങ്ങളാരിക്കണം എന്ന് അതിന് ആ അതിനെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അത് അങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കുന്ന അല്ലാതെ നമ്മൾ നമ്മുടെ രീതിയിൽ പോവുകയല്ല ചെയ്യുന്നത് ഏത് ഏതു രീതിയിൽ വേണമെന്ന് ആദ്യമേ നമ്മളതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളു ഭക്ഷണം കരുതാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കുറച്ചൊക്കെ നമ്മളുണ്ടാക്കിക്കൊണ്ട് പോവും പക്ഷെ ആ ആ സ്ഥലങ്ങളിൽ അവിടെച്ചെന്നു കഴിഞ്ഞിട്ട് അവിടെ പാകം ചെയ്തു കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോയി അവിടെ പോയി പാകം ചെയ്തു കഴിക്കും ആ രീതിയിലെല്ലാമാണ് നമ്മൾ ഇതിന് തയ്യാറെടുക്കുന്നത്